നിലവിലെ എൻ്റെ ആത്മീയ ഗുരു എൻ്റെ ഇടവക പള്ളിയിലെ അച്ഛനാണ് അച്ഛനെല്ലാ കാര്യങ്ങളിലും ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പം എന്ത് വിഷമ സന്ധിയിലിരിക്കുന്ന കാര്യത്തിലായാലും അതിനുള്ള ആൻസർ അച്ഛൻ്റെ കയ്യിലുണ്ട് ഇപ്പം അച്ഛനിങ്ങനെ ഒരു ആക്ടീവായും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആൻസറ് തരുന്ന അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും സഹായിക്കുന്ന ഒരാളാണെന്ന് പല അച്ഛൻ മുമ്പ് ഇരുന്ന പല ഇടവകയിൽ നിന്നും പല അങ്ങനെ പല ആൾക്കാരിൽ നിന്നും അതായത് അച്ഛൻ നേരത്തെ ഇരുന്ന ഇടവകയിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഫാമിലിയിൽ ഒരു ഇഷ്യു ഉണ്ടായപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി അവരുടെ ഫാമിലി ലൈഫ് സുഗമമാക്കി കൊടുത്തത് അച്ഛനാണ്

അങ്ങനെ എന്തു കാര്യങ്ങൾക്കും നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാം എന്ന് ഒരു നിർദ്ദേശം എനിക്ക് വെച്ച് നീട്ടിയത് എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഫ്രണ്ടിലൂടെ തന്നെ അച്ഛൻ ഈ ഇടവകയിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നമുക്ക് എനിക്ക് അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും എൻ്റെ നിലവിൽ എനിക്ക് എനിക്ക് ഉണ്ടാവുന്ന എന്ത് സാമൂഹിക മാനസിക ആത്മീയ പ്രശ്നങ്ങളെല്ലാം അച്ഛനോട് പങ്കുവയ്ക്കാം എന്നുള്ള നിലയിൽ എൻ്റെ ആത്മീയഗുരു നമ്മുടെ ഇടവകയിലെ അച്ഛൻ തന്നെയാണ് അതിലുപരി പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ മഠങ്ങളിലും ഹോസ്റ്റലുകളിലൊക്കെ നിന്ന് വളർന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അച്ഛന്മാരും സിസ്റ്റേഴ്സുമൊക്കെയായിട്ട് ഭയങ്കര കൂട്ടാണ് അവരുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാം എന്ന് എന്നെ സഹായിക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യും എൻ്റെ കൂടെയുണ്ടായിരിക്കും എനിക്ക് ധൈര്യമായിട്ട് ഒരു കാര്യം ഒരു പ്രശ്നം എനിക്ക് പറഞ്ഞാൽ അതിൽനിന്നും അതിന് എനിക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും എന്ന് എനിക്ക് ഉറപ്പുള്ള ആൾക്കാരാണ് അച്ഛൻമാരും സിസ്റ്റേഴ്സും അപ്പം അവരുടെ അവരുടെ കൂടെനിന്ന് വളർന്നത് കൊണ്ടാകാം എനിക്ക് എപ്പോഴും നമ്മുടെ ഇടവകയിലെ അച്ഛനാണെങ്കിലും നമ്മുടെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും അങ്ങനെ എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് അപ്പം എല്ലാവരുമായിട്ടല്ല എന്നു വെച്ചാൽ നമ്മക്കിപ്പം കുറച്ച് നാൾ കുറച്ച് വന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാകുമല്ലോ പക്ഷെ എനിക്ക് ഇപ്പോൾ എൻ്റെ ആത്മീയഗുരു എന്നു പറയുന്നത് എൻ്റെ ഇടവകയിലെ അച്ഛനാണ് അപ്പം അച്ഛൻ്റെ അടുത്ത് എന്നു വച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് എനിക്ക് അച്ഛനെ അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛൻ ഇങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും എല്ലാം അറിയാൻ സാധിച്ചത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല ഒരു മാർഗ്ഗദർശി അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് സംസാരിക്കാനായിട്ടും എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയാനായിട്ടും സാധിക്കുന്ന ഒരു മാർഗ്ഗ നിർദ്ദേശം എനിക്ക് ഒരു മാർഗ്ഗം നല്ല ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരാളാണ് എൻ്റെ ഇടവകയിലെ അച്ഛനെന്നുള്ളത് എനിക്ക് ആരോടും വേറൊരാൾക്കും ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാം അച്ഛനെ എനിക്ക് സജസ്റ്റ് ചെയ്യാം എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഒരു ചെറിയ കൊച്ചു കാര്യങ്ങളിലും ഞാൻ ഇപ്പം തെറ്റ് ചെയ്തതാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അച്ഛാ ഇങ്ങനെ എൻ്റെ കയ്യിൽനിന്ന് സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്നു പറയുമ്പോൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടുതരാൻ അച്ഛന് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇടവകയിലാണെങ്കിലും അച്ഛനാണെന്നെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ബാക്കി ഈ ഈയൊരു കാര്യങ്ങളിലല്ല രാഷ്ട്രീയ പരമായും ഇടവകയിലെ എല്ലാ നമ്മുടെ ഒരു ഇതെന്നല്ല

എല്ലാ ജാതി മതസ്ഥരും മതസ്ഥരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും എല്ലാരുമായിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി അന്വേഷിച്ച് അവർക്ക് എല്ലാം അതിന് ഒരു ഉത്തരം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിച്ച് എല്ലാരോടും മിങ്കിളായി പോകുന്ന നല്ല ഒരു വികാരിയിനെയാണ് ഗുരു ഒരു നല്ല ഒരു ഗുരുവിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒപ്പം അത് അതുപോലെതന്നെ ഇങ്ങനെ ഒരു ഗുരുവിനെ എനിക്ക് മനസ്സിലാക്കി തന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ ഫ്രണ്ട് അവളാണെങ്കിൽ അവളുടെ കാര്യങ്ങളിലുമെല്ലാം ഈ അവരുടെ ഒരു കുടുംബ പ്രശ്നത്തിൽ അല്ലെങ്കിൽ അവരുടെ എല്ലാ എല്ലാ പ്രശ്നങ്ങളിലും അച്ഛൻ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അച്ഛൻ്റെ ഇപ്പോഴും അച്ഛൻ ഇവിടെ ഉണ്ട് രണ്ട് വർഷം കൊണ്ട് അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊത്ത് ഉള്ളത് അപ്പം എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഞങ്ങളോടൊത്ത് ഉള്ള ഈ അച്ഛന് നന്നായിരിക്കട്ടെ അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ രണ്ട് മൂന്ന് വർഷം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഇരിക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പിന്നെ അച്ഛൻ എവിടെപ്പോയാലും എനിക്ക് വിളിച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു ഗുരു എന്ന നിലയിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അച്ഛൻ തന്നിട്ടുണ്ട് അപ്പം അത് പ്രയോജനം ഞാൻ അങ്ങനെയൊരു കാര്യം ഞാൻ പ്രയോജനപ്പെടുത്തും എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ പോകുന്നു